ഉത്സവങ്ങൾന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ല അതില് മുൻപന്തിയിൽ തന്നെയാണ് അത് ഇപ്പോൾ ഉത്സവങ്ങളാണെങ്കിലും കുമ്മാട്ടികളാണെങ്കിലും അതേപോലെ വേല പൂരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പാലക്കാട് ജില്ല മുൻപന്തിയിലാണ് പൂരങ്ങള് അതേപോലെ ഉത്സവങ്ങളൊക്കെ ഒരു മൂന്ന് നാല് മാസം ആ ഉത്സവ സീസൺന്നൊക്കെ പറയുന്നത് ഒരു നാല് മാസം മൂന്ന് മാസത്തോളം നീണ്ട് നിൽക്കുന്ന വലിയൊരു പരിപാടിയാണ് നമ്മുടെ സമത്വവും നമ്മടെ ആചാരങ്ങളൊക്കെ നമ്മുടെ സ്വത്വം നിലനിർത്തുന്ന വളരെ അധികം പങ്ക് വധി വഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഉത്സവം എന്ന് പറയണത് നമ്മുടെ ഉത്സവന്ന് പറയുമ്പോൾ ചെറുകുന്നത്ത് കാവ് പൂരം അതുപോലെ ചെനക്കത്തൂർകാവ് പൂരം നെന്മാറവല്ലങ്ങി വേല മുണ്ടൂര് കുമ്മാട്ടി മണപ്പുള്ളിക്കാവ് വേല ഇതൊക്കെ ഇതിൽപ്പെടുന്ന ഒന്നാണ് ജാതിഭേദമന്യേ ഭേദമന്യേ നമ്മള് എല്ലാവരും ആഘോഷിക്കുന്ന ഒന്ന് കൂടെയാണ് പൂരം എന്നൊക്കെ പറയണത് പൂരമെന്നൊക്കെ പറയുമ്പോൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസം അപ്പൊൾ ഏഴു ദിവസത്തെ പരിപാടിയാണ് അതി പ്രധാനപ്പെട്ടത് മൂന്ന് ദിവസായിരിക്കും ഒരു ദിവസം മറ്റേ കൊടിഉയർത്തല് കഴിഞ്ഞു പറഞ്ഞാൽ കഴിഞ്ഞ കൂത്തുമണിഡാന്നക്കെ പറയും അത് കഴിഞ്ഞുവെന്ന് പറഞ്ഞാൽ ഉത്സവത്തിൻ്റെ ആരംഭം ആയി ഉത്സവം ആരംഭിച്ച് ഏഴാം പക്കം ഉത്സവംന്നാണ് അപ്പൊൾ ഈ ഏഴാം പക്കം അതിൻ്റെ തലേന്ന് തൊട്ട് ഉത്സവങ്ങള് നല്ല ഗംഭീരമായിട്ട് നാടൻപാട്ട് അതേപോലെ ഗാനമേള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ടാവും അത് ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ പുലർച്ചെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ഈ തറയും പൂതനും വരാൻ തുടങ്ങും തറയും ഭൂതവും തറയും ഭൂതം വരും അനുഗ്രഹങ്ങളും എല്ലാ വീട്ടിലും വരും അനുഗ്രഹം മേടിക്കും അനുഗ്രഹം തരും അത് കഴിഞ്ഞിട്ട് നെല്ല് അരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദക്ഷിണ ചോദിച്ച് ഇവര് എല്ലാ വീട്ടിൽ കുടിം ഊര് വലം വയ്ക്കുക പറയും എല്ലാ വി ചുറ്റും നടന്ന് ഊര് വലം വക്കും അത് കഴിഞ്ഞ് പറഞ്ഞാൽ എല്ലാ വിരുന്നുകാരൊക്കെയുണ്ടാകും ഒരു പാട് പേരുണ്ടാകും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി പിന്നെ ഫുഡ് ഐറ്റംസ് സദ്യക്കൊള്ള ഒരുക്കങ്ങളും അതേപോലെ ഒരുക്കങ്ങളൊക്കെ ആയി അതുകഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി തൊഴുത് വരും തൊഴുത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പരുപാടികളായി ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളായി ഒരു പന്ത്രണ്ട് മണി പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴേക്ക് ഓരോ സ്ഥലത്ത് നിന്ന് ഉത്സവങ്ങൾ പുറപ്പെടാൻ തുടങ്ങും അത് ഓരോ ഏരിയേന്നായിരിക്കും ഉത്സവങ്ങള് വരിക പ്രദേശങ്ങളില് ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങള് ആ സമുദായങ്ങളുടേയും സ്ഥലങ്ങളുടേയും ക്ലബ്ബുകളുടെയൊക്കെ പേരില് ഉത്സവങ്ങള് വരാൻ തുടങ്ങും ഉത്സവങ്ങള് വന്ന് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടില് വച്ചിട്ട് ഉത്സവങ്ങള് കൊട്ടി തിമിർത്ത് കാവ് കേറുകാന്നാണ് പറയുക അങ്ങനെ നല്ല പല വണ്ടി വേഷങ്ങളും കൊട്ടുകള് ശിങ്കാരി മേളം നെയ്യാണ്ടി മേളം അതുപോലുള്ള നാസിക്ക് ടോള് ഇങ്ങനെള്ള ഒരു പാട് തരം കൊട്ടുകളുണ്ടാകും അതേപോലെ ഡിജെ ഡാൻസ് അതേപോലെ പല കളറുള്ള മറ്റേ പൂ കാവടികള് കാവടിയുണ്ടാകും അതേപോലെ ബൊമ്മകള് ഇങ്ങനെയുള്ള ഒരു പാട് കാഴ്ച്ചകൾ കാണാനുള്ള ഒന്നാണ് ഇതൊക്കെ അടങ്ങിയ വലിയ ഒരു സമൂഹത്തിൻ്റെ വലിയൊരു ഉത്സവം പരിപാടികളാണ് ഈ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അത് നമ്മുടെ സ്വത്വം വിളിച്ചുണർത്തുന്നതും ആയിട്ടുള്ള പരിപാടികളാണ്